മലയാള ഭാഷയിലും താല്പര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഭാഷ പഠിക്കുകയെന്നുള്ളതു തന്നെ നല്ല ഒരു ടാസ്കാണ് മലയാളത്തിൻറ്റെ അങ്ങനെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളൊക്കെ നമ്മൾ ഈസിയായിട്ട് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോൾ മറ്റ് പലർക്കും ഇതു വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഭാഷയൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ച്ചറും പല ഇത് മലയാളത്തിൽ പല വാക്കുകളും മറ്റു ഭാഷകളിലില്ല ഇപ്പോൾ ഴ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അതു പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഴാന്നൊക്കെ ഴാന്നൊക്കെ അതുകൊണ്ട് അവർക്ക് തിരിയത്തില്ല പഴമെന്നൊക്കെ പറയുമ്പോൾ പഴമെന്ന് അവർക്ക് തെളിഞ്ഞു വരത്തില്ല നമ്മളൊക്കെ ചിലപ്പം നല്ല വ്യൂസ് ഉപയോഗിക്കുന്നതു കൊണ്ട് അങ്ങനെയുള്ള മലയാള ഭാഷയിൽ സവിശേഷതളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നാക്കതെല്ലാം വഴങ്ങി തരുന്നുണ്ട് അങ്ങനെയുള്ള സവിശേഷതകൾ ഉള്ളത് വേറെ ഇംഗ്ലീഷ് പറയാനൊക്കെയാണെങ്കിലും ഏതു ഭാഷക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ പറയാൻ പറ്റും ഇംഗ്ലീഷായേന് ഹിന്ദി പോലും ബുദ്ധിമുട്ടു വേണ്ട കാര്യമായിട്ടില്ല പക്ഷേ മലയാളത്തിന് അങ്ങനെ കുറേ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട് ഇംഗ്ലീഷിനാണെങ്കിൽ ആകപ്പാടെ ഇരുപത്താറ് ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ഈ വാക്കുകളും മൊത്തം ഉണ്ടാക്കുന്നത് പക്ഷെ മലയാളത്തിലാണെങ്കിൽ എത്രയാണ് അൻപത്തി രണ്ടെണ്ണം ഇത് ആദ്യമൊരു ചില്ലക്ഷരം കൂട്ടക്ഷരം സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരങ്ങൾ ഇത്രണ്ണം പഠിച്ചാൽ അതിനെയൊക്കെ വായിൽക്കൊള്ളാത്ത പോലത്തെ പേരുകളെല്ലാം പലതുമുണ്ട് അതൊക്കെ വഴങ്ങി കിട്ടുകയെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് നല്ലതു പോലെ പഠിച്ചെടുത്താൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജ് മലയാളം തന്നെ